ഹലോ ബിജുവാണോ ബിജു നമ്മൾ കഴിഞ്ഞറാശം പോകാനായിട്ട് ഒരു മലയാറ്റൂർ ത് പോകണായിരുന്നു ഞങ്ങളുടെ ഫാമിലി ട്രിപ്പിനായിട്ട് അപ്പം ബിജു ഞങ്ങൾ കഴിഞ്ഞറാശം ഏതോ ഒരു കാറ് ഓഡ് ഓർഡറ് ചെയ്തായിരുന്നു പോയത് ആ കാറ് തന്നെ കിട്ടുവോ ആ ഞങ്ങൾ ഒരു ആറ് ആറ് പേരോളം കാണും അതിനകത്ത് ഇത്രേം പേര് ഒക്യു്പേ ചെയ്യാവുന്ന സ്പെയ്സക്കെ ഉള്ളതാണോ നല്ല കാരണവേ ഇതിന് മുൻപ് ഞങ്ങൾ ബാംഗ്ലൂര് പോവാൻ നേരത്ത് ആ കാറിലായിരുന്നു പോയതേ അപ്പം അന്നത് നല്ല സുഖമായിരുന്നു കാരണം ഞങ്ങളെ പോവേണ്ടിടത്തൊക്കെ നല്ലതായിട്ട് എത്തിക്കേം ചെയ്തു യാത്രക്കാണേലും ബുദ്ധിമുട്ടില്ലായിരുന്നു ആൾക്കാർക്കാണേലും നല്ല കംഫർട്ടായിരുന്നു എല്ലാവരും പറഞ്ഞു ഡ്രൈവർ നല്ലതാണ് നല്ല സേഫായിട്ട് നമ്മളെ കൊണ്ട് പോയി അപ്പോൾ അതേ കാറ് തന്നെ മതീന്നൊക്കെ പറഞ്ഞു അതിനകത്ത് നല്ല സുഖമായിരുന്നു സീറ്റിങ്ങോക്കെയാണേങ്കിൽ

സേഫായിട്ട് പോയിട്ട് വരാം കാരണം ഞങ്ങൾക്ക് വഴിയരികിൽ ഞങ്ങളെ നിർത്തി നല്ല കടകളീ കയറ്റുകൊക്കെ ചെയ്തു ഞങ്ങളെ നല്ല സുരക്ഷിതരായിട്ട് കൊണ്ട്പോയത് കൊണ്ട് ആ പുള്ളിയെ തന്നെ വിളിക്കാവോന്ന് ചോദിച്ചു എന്നാ ബിജുവിന് അസൗകര്യമുണ്ടോ ഉണ്ടെങ്കി പറയണം കേട്ടോ കാരണം നമുക്ക് എല്ലാവർക്കും ആ യാത്ര ഇഷ്ട്ടപെട്ടു ആ കാറും ഇഷ്ട്ടപെട്ടു അങ്ങനെ വന്നപ്പേവർ പറഞ്ഞു ആ പുള്ളിക്ക് തന്നെ ഓഡറ് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വിളിക്കുവാണ് ഞങ്ങളടുത്തെരു പതിനഞ്ചാം തിയതിലേക്ക് പോകാനാണ് തിരുമാനിച്ചിരിക്കുന്നത് അപ്പം ആ നമ്മളാ കഴിഞ്ഞറാശം പോയ അതേ കാറ് തന്നെ ഞങ്ങൾക്ക് വേണം കേട്ടോ അപ്പം ബിജു സമയം ഞാൻ ബിജുവിനോട് പറയാവേ